പതിനാല് ഒന്ന് രണ്ടായിരത്തി രണ്ട് അഞ്ച് ആറ് രണ്ടായിരത്തി മൂന്ന് ഏഴ് എട്ട് രണ്ടായിരത്തി നാല് ആറ് ഒമ്പത് രണ്ടായിരത്തഞ്ച് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്